ഹലോ എൻ്റെ പേര് റോസ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ എത്താൻ വേണ്ടി എനിക്ക് എൻ്റെ യാത്രയ്ക്കായിട്ട് ഒരു എഴുന്നൂറ് രൂപ ചിലവായി പക്ഷേ എൻ്റെ കൈയിലുള്ള യു പി ഐ ഞാൻ ഫോൺ പേ വഴിയും പേ ടി എം വഴിയും പേ ചെയ്യാൻ നോക്കിയിട്ട് അതു ഒന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കൈയ്യിലുള്ള പണം ഉപയോഗിച്ച് എൻ്റെ യാത്ര നിരക്ക് നൽകിയാൽ മതിയോ എൻ്റെ കയ്യിൽ അല്ലാതെ ചെയ്യാൻ വേറെ പൈസയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്നു